എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഹെയർ ജെല്ലാണ് ഹെയർ ജെല്ല് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്തിനാണെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി എങ്ങനെയാണോ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത് അതേപോലെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ ജെല്ല് യൂസ് ചെയ്യുന്നത് പല ടൈപ്പ് ഹെയർ ജെല്ല് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും കടയിലില്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഹെയർ ജെല്ല് യൂസ് ചെയ്യുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് യൂസ് ചെയ്താൽ നമ്മളെ തലയൊക്കെ കറക്റ്റ് മുടിയൊക്കെ കറക്റ്റായിട്ടിരിക്കും പക്ഷെ അതിനു മെയിനായിട്ട് കുറേ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെയെന്നു വെച്ചുകഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ തലവേദന അതാണ് മെയിനായിട്ട് വരിക നമുക്ക് മൈഗ്രൈനും കാര്യങ്ങളൊക്കെ പെട്ടന്ന് പെട്ടന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെയെന്നു പറഞ്ഞാൽ അതിനു പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണമെന്താണെന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഹെയർ ജെല്ലെന്നു പറഞ്ഞാൽ പല ടൈപ്പ് ഹെയർ ജെല്ലുണ്ട് ഇപ്പോൾ വാക്സുണ്ട് സാധാ നമ്മുടെ വാക്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെത്തന്നെ ഇരുന്നിങ്ങനെ ചകിരിച്ചോറു പോലെ ചകിരിനാരു പോലെ ഇരിക്കുന്നൊരു സാധനമാണ് ഈ വാക്സെന്നു പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭയങ്കര കെമിക്കലാണ് അപ്പോൾ അതൊക്കെ നമ്മള് യൂസ് ചെയ്തുകഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പെട്ടന്ന് കൊഴിയും താരൻ വരും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും